ആ ഹലോ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം ആ ഒരു കഴിഞ്ഞ ദിവസം ഒരു ഷർട്ട് ഓർഡറ് ചെയ്തായിരുന്നു ഞാൻ അത് എനിക്ക് അതൊന്ന് ക്യാൻസൽ ആക്കണമായിരുന്നല്ലോ ആ ഓർഡറ് അതിന് വേണ്ടിയിട്ട് ഞാൻ എന്നാ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊന്ന് പറഞ്ഞു തരാമോ റദ്ദാക്കാൻ കാരണം ക്യാന്സല് ചെയ്യാന് കാരണമോ അതേ ഞാന് അത് തന്നെ സെയിം തന്നെ ഷർട്ട് അത് ഞാൻ ഷോപ്സിയിൽ അതിലും കുറേ വില കുറഞ്ഞു കണ്ടു അപ്പം അവിടെ നിന്നെടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു ആ സെയിം സെയിം ഷർട്ട് തന്നെയാണ് സെയിം മെറ്റീരിയലൊക്കെ അത് എല്ലാം സെയിമായിട്ടാണ് കിടക്കുന്നത് അപ്പം അതിന് ഒരു നൂറ് രൂപയുടെ തന്നെ ഡിഫ്രൻസ് അതിനകത്ത് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അത് മാറ്റി അതുകൊണ്ട് ഷോപ്സി നിന്ന് അത് വാങ്ങിക്കാം എന്ന് ഓർത്തു അതുകൊണ്ട് ഈ ഓർഡർ ഒന്ന് ക്യാൻസൽ ചെയ്യണമായിരുന്നു അപ്പം എനിക്ക് അത് ക്യാൻസല് ചെയ്യാൻ പറ്റുമോ ഓക്കെ എനിക്ക് അത് അങ്ങനെ ചെയ്തു തരുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു കാരണം അത് ആണ് ഓരേ സെയിം സാധനം തന്നെ ഇങ്ങനെ കണ്ടത് കൊണ്ട് ആണ് ഞാൻ അത് ഇത് ഞാൻ റദ്ദാകുന്നു ക്യാൻസല് ചെയ്യുന്നത് അപ്പം എനിക്ക് അത് ഷോപ്സിയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു അത് എന്ന ഇങ്ങനെ അത്രയൊക്കെ ഡിഫ്രൻസ് വരുന്നത് ഇങ്ങനെ ഡിഫ്രൻസ് സംഭവങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞു കഴിയുമ്പോൾ കാണുമ്പം ഭയങ്കരമൊരു ബുദ്ധിമുട്ടല്ലേ ഇപ്പം ഏതായാലും ഞാൻ അന്ന് വാങ്ങിക്കുന്നതിന് മുമ്പ് തന്നെ കണ്ടതുകൊണ്ട് എനിക്ക് ഇത് ക്യാൻസല് ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ ഇങ്ങനെ ഒരേ ഒരേ സെയിമായിട്ടുള്ള സാധനങ്ങൾക്ക് തന്നെ ഇങ്ങനെ ഡിഫ്രൻസ് വരുന്നത് ഭയങ്കരമൊരു ബുദ്ധിമുട്ടുള്ള കാര്യം ആയിരുന്നല്ലോ അപ്പം എനിക്ക് അതൊന്ന് റദ്ദാക്കി തന്നാൽ മതിയേ ക്യാന്സല് ഞാൻ അത് എനിക്ക് അടുത്ത സ്ഥലത്ത് നിന്ന് വാങ്ങിക്കാനായിരുന്നു അപ്പം ഓക്കെ ഓക്കെ താങ്ക് യു